എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഇതുവരെ ഒരു മാരേജ് പോയിട്ട് ഡാൻസ് കളിച്ചിട്ടില്ല അതുപോലെത്തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുമില്ല ഇങ്ങനെ ഡാൻസ് മാരേജ് ഇവൻ്റുകളിൽ ഡാൻസ് പഠിപ്പിക്കാനുള്ള ഒരവസരം എനിക്ക് കിട്ടിയിട്ടില്ല സോ ഞാൻ ആദ്യമായിട്ട് ഒരു സ്റ്റേജ് കയറി ഞാൻ ഡാൻസ് ചെയ്തതെന്നു പറഞ്ഞാൽ എൻ്റെ സ്കോ സ്കൂൾ ആൻഡ് കോളേജ് ഈവൻ്റുകളിലാണ് അതുപോലെത്തന്നെ സ്കൂൾ ഈവൻ്റുകളിൽ എന്നെ ഒരാൾ പഠിപ്പിക്കുകയായിരുന്നു സൊ ഞാൻ പഠിച്ചു സ്റ്റേജിൽ കയറി ഡാൻസു കളിച്ചു പിന്നെ ഞാൻ കോളേജ് വന്നത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ പഠിപ്പിച്ചിട്ടും ഉണ്ട് അതുപോലെത്തന്നെ ഡാൻസ് കളിച്ചിട്ടും ഉണ്ട് എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഡാൻസ് സിമ്പിളാണോ അതോ പാടാണോയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം ബേസിക് തൊട്ട് ഫസ്റ്റ് ചെറുപ്പം തൊട്ട് ഡാൻസ് പഠിക്കുന്ന ആൾക്കാർക്ക് ക്ലാസ്സിക്കൽ ആയിക്കോട്ടെ സിനിമാറ്റിക് ആയിക്കോട്ടെ പഠിക്കുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കാണെങ്കിൽ പെട്ടെന്ന് ഒരു സ്റ്റെപ്പ് കണ്ടു മനസ്സിലായി അത് പഠിക്കാൻ ഭയങ്കര എളുപ്പം പക്ഷേ ഡാൻസുമായിട്ട് ഒരു ബന്ധവും ഇല്ലാണ്ട് അതുപോലെത്തന്നെ കളിച്ചിട്ടും ഇല്ലാത്ത ഒരാൾ ഡാൻസ് പഠിക്കുമ്പോൾ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും ഞാൻ ആദ്യമായിട്ട് സ്കൂൾ ഈവൻ്റുകളിലൊക്കെ ഞാൻ ഡാൻസ് പഠിക്കാൻ പോയപ്പോൾ അതുപോലെത്തന്നെ ആയിരുന്നു അതായത് ബൈ ഫസ്റ്റ് ടൈം എനിക്ക് എൻ്റെ മിസ്സുമാർ പഠിപ്പിച്ച ഓരോരോ സ്റ്റെപ്പ് എനിക്ക് പഠിച്ചെടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു കഷ്ടപ്പാടായിരുന്നു അതുപോലെത്തന്നെ ഞാൻ പഠിച്ചെടുക്കാൻ എനിക്കെൻ്റെ ശാരീരികമായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാൾ പഠിപ്പിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടെന്നു പറയുമ്പോൾ ഒരാൾ പഠപ്പിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആവണമെന്നില്ല അവരുടെ ശരീരവും അവരുടെ സ്റ്റെപ്പും ബോഡി ഷേപ്പും സോ ഒരാൾ പഠിപ്പിക്കുന്നതും ഭയങ്കര കഷ്ടമാണ് ഒരു വിഷയം തന്നെയാ ഡാൻസ് സിമ്പിളാണോയെന്നു ചോദിച്ചാൽ പഠിച്ചെടുത്താൽ ഭയങ്കര സിമ്പിളാണ്